ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ട് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും അതിൽ പറയാനുള്ളത് സോഷ്യൽ വെബ്സൈറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള പഠനം തന്നെയാണ് ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ഓൺലൈൻ ക്ലാസ്സ് ഓൺലൈൻ കോഴ്സസ് അതുപോലെ ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരുപാട് ആപ്പ്ളിക്കേഷൻസ് നമുക്ക് ഇന്ന് നിലവിലുണ്ട് അതെല്ലാം യൂസ് ചെയ്ത് കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഹാർഡ്വർക് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് പഠിക്ക ബുദ്ധിമുട്ടി പഠിക്കാനുള്ള ആ ഒരു ഒരു കാര്യം കുറച്ചും കൂടി ഈസിയായിട്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ കൺവീനിയൻറ്റായിട്ടുള്ള രീതിയിൽ അവർക്ക് പഠിക്കാൻ കഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കിപ്പം ടൈമിൻ്റെ ഒരു അവൈബലിറ്റിൻ്റെ അവൈലബിലിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ സോ അത് നമുക്ക് പ്രിവന്റ് ചെയ്യാൻ കഴിയും അതേപോലെത്തന്നെ അവർക്ക് എന്താ പറയുക അധിക നേരം ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് അവർക്കൊട്ടും ഫോക്കസ് ആവാൻ കഴിയുന്നില്ലെങ്കിൽ ഫോക്കസ്ഡാവാൻ കഴി കഴിയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പറ്റുന്ന രീതിയില് അതിപ്പോൾ ഒരു ഓരോരോ പോർഷൻസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് പഠിച്ച് മുന്നേറാൻ കഴിയും അത് മാത്രല്ല ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഈസിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതിനേക്കാളുപരി അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് അതില് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനുള്ള അവസരവും ഇതേപോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഈ ഈബുക്ക്സ് റിസർച്ച് തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതോടെ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ഒട്ടും കഴിയാത്തൊരു ഭാഗം പോലും ഒരു പോർഷൻ പോലും എ ഏതൊരു കുട്ടിക്കും ഈസിയായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങളെ കൂടുതൽ പ്രമോട്ട് ചെയ്ത് കുട്ടികളുടെ ആ ഒരു പഠനഭാരം കുറയ്ക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള മാറ്റങ്ങൾ കുട്ടികളുടെ ഭാവിക്കായിട്ട് അല്ലെങ്കിൽ നല്ല ഭാവിക്കായിട്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടും